നമ്മുടെ നാട്ടിലെ ഭക്ഷ്യ വിളകൾ കൃഷി ചെയ്യുന്നതിൽ വളരെയധികം കുറവുണ്ടായി അത് നമ്മുടെ ഭക്ഷണരീതിയെ വളരെയധികം പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് കാർഷിക വിളകൾ നമ്മൾ കൃ പണ്ടുകാലത്ത് നമ്മൾ കാർഷിക വിളകൾ നമ്മൾ കൃഷി ചെയ്ത് ഉല്പാദിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളും ഭക്ഷ്യ വിഭവങ്ങളും നമ്മൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരുക്കുവായിരുന്നു പരമ്പരാഗതം ആയിട്ട് അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു ഉപഭോക്തൃ സംസ്കാരത്തെ ആശ്രയിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല വന്നിട്ടുണ്ടായിരുന്നില്ല അതിനാൽ തന്നെ മായമില്ലാത്ത ആഹാരങ്ങളും നമ്മുടെ വീടുകളിൽ ലഭ്യവുമായിരുന്നു അതിനാൽ തന്നെ അസുഖങ്ങളും ആരോഗ്യപ്രശ്നങ്ങളും വളരെയധികം കുറവായിരുന്നു എന്നാൽ നമ്മൾ എപ്പോഴാണോ നമ്മുടെ ഭക്ഷ്യവിളകൾ കൃഷിചെയ്യുന്നത് കുറവുണ്ടായത് അപ്പോൾ മുതൽ നമ്മുടെ ഭക്ഷണരീതി വളരെയധികം മാറിയിട്ടുണ്ട് നമ്മൾ എല്ലാ കാര്യത്തിനും പ

പുറമേ നമുക്ക് ലഭിക്കുന്ന ആഹാരങ്ങ ഭക്ഷ്യവസ്തുക്കൾ അത് ഉണ്ടാക്കുന്നത് മാരകമായിട്ടുള്ള കീടനാശിനികളും വിഷങ്ങളുമൊക്കെ ചേർത്തിട്ടാണ് കാരണം അത് കേടായിപ്പോകാതിരിക്കാനും അതുപോലെ വിളകൾക്ക് വിളകളെ കീടങ്ങളൊക്കെ ബാധിക്കാതിരിക്കാനും വേണ്ടി വളരെയധികം മാരകമായിട്ടുള്ള കീടനാശിനികൾ അടിച്ചിട്ടാണ് നമുക്ക് ആ ഭക്ഷണസാധനങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്താറുള്ളത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ കിട്ടുന്ന ഈ ഈ കീടനാശിനികളുടെയൊക്കെ ഉപയോഗം കാരണം കിട്ടുന്നതാണ് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഇന്ന് കേരളത്തിൽ ഏറ്റവുമധികം ലൈഫ്സ്റ്റൈൽ ഡിസീസസ് ആണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത് അതിൽ മാരകമായിട്ടുള്ള അസുഖങ്ങൾ പോലുമുണ്ട് ക്യാൻസർ പോലെ മാരകമായിട്ടുള്ള അസുഖങ്ങൾ പോലും കൂടുതലായിട്ട് ഇന്നത്തെ തലമുറയെ ബാധിക്കാനുള്ള കാരണം ഈയൊരു ഭക്ഷണരീതിയിലുണ്ടായ കുറവ് കുറവുകളാണ് ഭക്ഷണ ഭക്ഷണരീതിയിലുണ്ടായ മാറ്റമാണ് അപ്പോൾ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഫൂ സംസ്കാരത്തെ ഭക്ഷണ സംസ്കാരത്തെ തിരികെ പിടിക്കാനായിട്ട് കൂടുതലായിട്ട് നമ്മൾ കാർഷിക വൃത്തി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക ചെറുപ്രായം തൊട്ട് തന്നെ കുട്ടികൾക്ക് സ്കൂളുകളിൽ കാർഷിക വൃത്തിയെപ്പറ്റി അല്ല കൃഷിയെ പറ്റിയിട്ടുള്ള അവബോധം കൊടുക്കുക ചെറുപ്രായത്തിൽ തന്നെ അവർ ചെറിയ ചെറിയ കൃഷികൾ ചെയ്യാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നാൽ മാത്രമേ ഒരു ഉയർന്ന് വരുന്ന ഒരു സമൂഹത്തിൽ നമ്മുടെ ഭക്ഷണ സംസ്കാരം തിരികെ പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കുളളൂ